ഹലോ ഇത് ബി എം ഹയർ സെക്കൻഡറി സ്കൂൾ കാസർഗോഡ് അല്ലേ ആ പ്രിൻസിപ്പാളാണല്ലേ ഓക്കെ ഓക്കെ എൻ്റെ കുട്ടിക്ക് എൽ കെ ജിയിലേക്ക് ഒരു അഡ്മിഷന് വേണ്ടിയിട്ടായിരുന്നു മോൾക്ക് വേണ്ടിയിട്ട് എൽ കെ ജിയിലേക്ക് അതെ അതെ കുട്ടീടെ പേര് അഹന്യ എന്നാണ് പേര് വരുന്നേ

അപ്പം എന്നെ കുമാർ എന്ന് പറയും അതെ അതെ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് വരുന്നത് ഡൊണേഷനും ഫീസും കാര്യങ്ങളെല്ലാം ഓക്കെ ഓക്കെ ആ ആ ആ ഓക്കെ ഓക്കെ അത് എങ്ങനെ തവണയായിട്ട് ആണോ വരുക അതോ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ആ ചെയ്യാം ചെയ്യാം സാർ ഒരു നമ്പറ് എങ്ങനെയാണ് അത് ആ പെട്ടെന്ന് ചെയ്യുക അത് നമുക്ക് അത് പെട്ടെന്ന് തന്നെ ചെയ്യാം പെട്ടെന്ന് തന്നെ ചെയ്യാം പ്രശ്നമില്ല അത് അതെ അതെ നമുക്ക് അത് ചെയ്യാം ഞാൻ ചെയ്തിടാം സാർ ഒരു നമ്പർ ഒന്ന് ഷെയറ് ചെയ്യുകയാണെങ്കിൽ സ്കൂളിൽ വന്നെങ്കിൽ നിങ്ങളുടെ നമ്പർ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് അയച്ച് ഇട്ടാൽ ഞാൻ അതിലേക്ക് ചെയ്യാം ആ അതെ അല്ലേ ഓക്കെ സാർ സാറിൻ്റെ പേര് എങ്ങനെ ആയിരുന്നു സാറിൻ്റെ പേര് എങ്ങനെ ആയിരുന്നു ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ അത് ഓക്കെ വേറെ ആരെയും കണ്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കേണ്ടി വരുമോ ഇല്ലല്ലോ സാറിന് സാറിന് ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഇപ്പോൾ നിലവിൽ തീരാനായിട്ട് ഉണ്ടാവും അല്ലേ ആ ആ ഓക്കെ ഓക്കെ സാറ് ഫ്രീ ആയിട്ട് വിളിച്ചാൽ മതി സാറ് ഫ്രീ ആയിട്ട് വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ